മലയാളി ഭാഷ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഒരു മലയാളിയായി ജനിച്ചതിൽ ശെരിക്കും നല്ലൊരു അഭിമാനമാണ് കാരണം എവിടെ പോയാലും മലയാളികളെ ആരെ ഏതൊരു നാട്ടിൽ പോയെന്ന് പറഞ്ഞാലും മലയാളികളെ ആരെന്ന് പറഞ്ഞാലും തിരിച്ചറിയും ഇപ്പം ഇപ്പോൾ ഒരു ജോബിൻറെ അടുത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ പോയെന്ന് പറഞ്ഞാലും അവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെ ആണെങ്കിലും പല പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ആയ മലയാളം ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷേ മറ്റുള്ളവർക്ക് ആ ഒരു മലയാള ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി തന്നെ ബുദ്ധിമുട്ടായിരിക്കും കാരണം മലയാളം എന്നുള്ളൊരു ഭാഷ പഠിക്കാൻ തന്നെ വളരെ ടഫ് ആണ് കാരണം ചിലർക്ക് ഴ അങ്ങനത്തെ ചെല വേർഡുകൾ മലയാള അക്ഷരങ്ങൾ നാക്കിൽ പെടാണ്ട് നാക്കിൽ സംസാരിക്കുന്നഠ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഏറ്റവും നല്ല ഡിഫിക്കൾട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം തന്നെയാണ് ഇപ്പം എവിടെ ചെന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുറം നാട്ടിൽ മൊറം പുറം നാട്ടിൽ പോയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും മലയാളിയെ കാണുമ്പം അവർക്കൊരു സന്തോഷമാണ് കാരണം കാരണം ഈയൊരു ഇപ്പം പല രാജ്യത്തും പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് കഴിയുമ്പം ഞാൻ എനിക്കൊരു മലയാളിയെ കാണാൻ പറ്റി അങ്ങനെ അതിലും ഞാൻ അഭിമാനിക്കുന്നു കാരണം എന്നെ ഇത്ര നാൾ ഇത്ര നാളും ഞാനൊരു മലയാളിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്തായാലും ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു മലയാളിയെ കാണാൻ പറ്റി അപ്പം അതിൽ ഞാൻ സന്തോഷിക്കുന്നു അപ്പം അങ്ങനെതായ കുറേ ഇതുണ്ട് പിന്നെ എന്താണ് മലയാളികളായാലും ആ ഒരു സ്നേഹം ഇപ്പം വേറൊരു സ്ഥലത്ത് പോയാലും നമ്മുടെ ആ ഒരു ഇപ്പം വേറൊരു സ്ഥലത്തിപ്പം ഫോർ എക്സാംപിൾ ഹൈദ്രാബാദൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോയി അവിടെ ഇപ്പം ഏറ്റവും ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തെലുങ്കാണ് തെലുങ്ക് ലാംഗ്വേജ് ആണ് ഉള്ളത് അപ്പം അവർക്ക് മലയാളം നമ്മുടെ കേൾക്കുമ്പം തന്നെ ആയാലും അവർക്ക് അവർക്കത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് പക്ഷേ അത് ചിലർക്ക് ചിലത് നാക്കിൽ വഴങ്ങാറില്ല ചില ഴകൾ ചില മഴകൾ മഴയൊക്കെ പറയുമ്പോൾ ആ ഉള്ള ഴകൾ ചിലപ്പോൾ ശി ഒക്കെ പറയുന്നതുപോലെ അങ്ങനത്തെ കുറേ വേഡുകൾ മീൻസ് ചിലരെ നാക്കിൽ വഴങ്ങാറില്ല അപ്പം മലയാളി ആയി ജനിച്ചതിൽ എന്നും നമുക്ക് അഭിമാനിക്കാം എവിടെ പോയാലും മലയാളി നം മലയാളി മലയാളികൾക്ക് കൊടുക്കേണ്ടൊരു റെസ്പെക്റ്റ് ഉണ്ട് റെസ്പെക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മലയാളി ആയി മലയാളി ആയി എവിടെ പോയാലും ഇപ്പം മറ്റുള്ളവരെ പിന്നെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലായാലും അവരെ സഹായിക്കാറാണ് ചെയ്യാറുള്ളത് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാനോ ഒന്നിനും പോവില്ല പറ്റുന്ന രീതിയിൽ തന്നെ മറ്റുന്ന പറ്റുന്ന രീതിയിലാണ് മറ്റുള്ളവരെ സഹായിക്കാൻ അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് മലയാളി എപ്പോഴും എന്ന് പറയുന്നത് എല്ലാ എന്തൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിലും മറ്റൊരു പല പല കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി ആണെങ്കിലും എന്തെങ്കിലും മലയാളികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ അവരൊരു ഒറ്റ കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒറ്റ ഒരു സമൂഹമായിട്ടാണ് അവർ മുന്നോട്ട് നിൽക്കുന്നത് ഏതൊരു പ്രതിസന്ധി വന്നെന്ന് പറഞ്ഞാൽ അവർ ഒറ്റ കെട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും വലിയൊരു പ്രളയമാണ് അനുഭവപ്പെട്ടത് കേരളത്തിൽ എന്നിട്ടും മലയാളി എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പം നാടിന് തന്നെ ഒരു ഊർജ്ജസ്വരാണ് കാരണം അവർ ഒറ്റ കെട്ടായിട്ട് ഒന്നിച്ച് നിന്ന് ആ ഒരു പ്രളയത്തെ മൊത്തം വീണ്ടെടുത്ത് അവർ ഒന്നായി ഒറ്റ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത് അപ്പം ആരെത്ര ഒരു ഇത് വന്നെന്ന് പറഞ്ഞാലും തോൽപ്പിക്കാനാവില്ല അപ്പം മലയാളി എന്ന് പറയുമ്പം തന്നെ അഭിമാ ആ ഒരു പേര് ഇല്ലെങ്കിൽ ആ ഒരു പേരിൽ തന്നെ അറിയാൻ പറ്റും കാരണം മലയാളി എന്ന് പറഞ്ഞത് അഭിമാനിക്കാൻ വേണ്ടി ആ ഒരു സന്തോഷമാണ് മലയാളി എന്ന് പറയുമ്പം കിട്ടുന്നതിൽ അതെത്ര എത്ര വാക്കുകൊണ്ട് പറഞ്ഞാലും അത് അത് മതിയാവില്ല അത്രമേൽ സന്തോഷം ഉണ്ടൊരു മലയാളിയായി ജനിച്ചതിൽ അതിൽ ഞാൻ അഭിമാനിക്കുന്നും ഉണ്ട്